എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ എന്ന് പറയുന്നത് പ്രേംചന്ദ് എന്ന് പറയുന്ന എഴുത്തുകാരനാണ് ഹിന്ദി എഴുത്തുകാരനാണത് പിന്നെ ഒരുപാട് കൃതികൾ എഴുതിയിട്ടുണ്ട് പ്രേംചന്ദ്ര എഴുതിയ കൃതിയെന്നു വച്ചാൽ രംഗഭൂമി കർമ്മഭൂമി നിർമല എന്നിങ്ങനെ ഒരുപാട് നല്ല നല്ല കൃതികൾ എഴുതിയ ഒരാളാണ് പ്രേംചന്ദ് ദളിതരുടെ അവസ്ഥയെ പറ്റി ഒരുപാട് കൃതികളിൽ പരാമർശിച്ചിട്ടുണ്ട് അവരുടെ അവസ്ഥകൾ അവരുടെ കഷ്ടപ്പാടുകൾ അവരെ എന്താണ് അവരെ കൂടുതൽ വിഷമിപ്പിക്കുന്നത് എല്ലാത്തിനെപ്പറ്റിയും കൂടുതലായിട്ട് അവരുടെ പ്രേംചന്ദിൻ്റെ കൃതികളിൽ നമുക്ക് കാണാൻ പറ്റും പാവപ്പെട്ടവരെ സഹായിക്കുന്ന രീതിയിലുള്ള കൃതികളായിരിക്കും പ്രേംചന്ദിൻ്റെ കൂടുതലും അതൊക്കെ കൊണ്ടുതന്നെയാണ് എനിക്കിഷ്ടപ്പെടാൻ കാരണവും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെയാണിത് പ്രേം പ്രേംചന്ദിൻ്റെ പുസ്തകങ്ങളാണ് കർമ്മഭൂമി പിന്നെ രംഗഭൂമി നിർമല എന്നീ കൃതികളൊക്കെ പിന്നെ അയാളെ ഇഷ്ടപ്പെടുന്ന ഘടകം എന്നു വെച്ചാൽ ദളിതർക്ക് വേണ്ടി പ്രയത്നിക്കുക ദളിതരുടെ അവസ്ഥയെ കുറിച്ച് കൂടുതൽ എല്ലാവർക്കും മനസിലാക്കിക്കൊടുക്കുക എന്നുള്ള ഒരു ഘടകം തന്നെയാണ് അയാളുടെ കൃതികളിൽ മുഴുവനായിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെടുന്ന ഘടകം എന്നു വെച്ചാൽ അദ്ദേഹം ഒരു ദളിതനല്ല ഒരു പാവപ്പെട്ടവനല്ല എന്നിട്ടും അവർക്കു വേണ്ടി പ്രയത്നിക്കും അവരുടെ അവസ്ഥയെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയും അവരെ മുന്നേറാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യുന്നതാണ് ആ ഒരു ഘടകം എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു